ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് ഇവിടെ പുസ്തകശാലയൊന്നും ഇല്ല കോളേജിൽ പഠിക്കുമ്പോൾ പഠിക്കുമ്പോൽ ഇങ്ങനെ പുസ്തകശാല ലൈബ്രറി ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് ഞാൻ വായിച്ചതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ബെന്യാമിൻ്റെ ആടുജീവിതം എന്നു പറഞ്ഞൊരു ഒരു ജീവിത കഥയാണ് അപ്പോൾ അതു അതാണ് ഞാൻ വായിച്ചിട്ടുള്ളത് അത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഞാൻ വായിച്ചതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു എന്താ ആത്മകഥയാണ് അത് പിന്നെ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടമാണ് നോവലുകൾ വായിക്കാൻ ആണ് കൂടുതലായിട്ടും ഇഷ്ടം ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്